അപ്പോൾ പല കാലാവസ്ഥകളിലും ചെടികൾ നന്നായിട്ട് വളരുന്ന ഒരു ഇതാണുള്ളത് നമ്മളതിന് അനുസരിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഓരോ കാലാവസ്ഥകളിലും പല രീതിയിലുള്ള ചെടികള് ഉണ്ടാവുന്നൊരു കാലാവസ്ഥയാണ് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് പറയാം കാരണം ഇപ്പോൾ മഴ ടൈമിൽ ഒന്നും അങ്ങനെ നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കൊണ്ട് ചിലപ്പോൾ ചെടികളൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചെടികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകാനും അങ്ങനത്തെ പല രീതിയിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോ ചെടികള് ഇപ്പോൾ റോസ ഉണ്ട് ഡാലിയ അങ്ങനത്തെ പല രീതിയിലുള്ള ചെടികളുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല രീതിയില് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്